വിനോദസഞ്ചാരത്തിലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വികസനം പ്രാപിച്ചത് ഇന്ത്യയിൽ വിനോദസഞ്ചാര വ്യവസ്ഥയിലാണ് അതായത് രാജ്യത്ത് ഏറ്റവും ജനപ്രിയമായിട്ട് പലപല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട് ചിലവർക്ക് ട്രക്കിംഗ് ഇഷ്ടമായിരിക്കും ചിലവർക്ക് പിന്നെ നമ്മുടെ വെള്ളത്തിലുള്ള യാത്രയായിരിക്കും ഇഷ്ടം ഓരോരുത്തരെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും അത് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പിന്നെ ട്രക്കിംഗ് സ്പോട്ടുകൾ ഉണ്ട് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് മക്കൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ ഉണ്ട് പിന്നെ ഡാമുകൾ ഉണ്ട് പിന്നെ ഓരോത്തർക്കും ഓരോ രീതിയിലുള്ള ഇതുണ്ട് വാട്ടർ സ്പോർട്സ് ഉണ്ട് വലിയ വലിയ പിന്നെ ഇത് അതായിത് പണ്ടത്തെ കൊട്ടാരങ്ങൾ ഉണ്ട് ഇന്ത്യയെന്ന് പറഞ്ഞ ഏഴ് അത്ഭുതങ്ങൾ കൊണ്ട് ഇതാക്കിയതാണ് അങ്ങനെ കാണാൻ പറ്റിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് താജ് മഹാൽ താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ലോകത്തെവിടെ ചെന്നാലും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം വ്യവസായി അതായത് ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് ഷാജഹാൻ ഉണ്ടാക്കിയതാണ് താജ്മഹൽ ഡൽഹിയിലെ ഹൃദയഭാഗത്ത് ഇരിക്കുന്ന താജ്മഹൽ ഏറ്റവും വലിയ വിനോദസഞ്ചാര വ്യവസായത്തിന് തന്നെ മുൻതൂക്കം ഒരു കൊടുക്കുന്ന ഒന്നാണ് ഓരോരുത്തരുടെ ആൾക്കാർക്ക് ഓരോന്നിനോട് ആയിരിക്കും താത്പര്യം ചിലപ്പം ചരിത്രമുറങ്ങുന്ന മണ്ണ് കാണാനും അവിടുത്തെ അവശിഷ്ടം കാണാനും ആയിരിക്കും ചിലർക്ക് ആഗ്രഹമെങ്കിലും ചിലവർക്ക് ട്രെക്കിങ്ങും പിന്നെ വാട്ടർ സ്പോർട്സും അല്ലെങ്കിൽ ചിലവർക്ക് പിന്നെ ബോട്ടിൽ കയറാനും നല്ല നല്ല ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു